അതെ ശരിയാണ് ചിലർ രാഷ്ട്രീയ സംഘർഷണം സൃഷ്ടിക്കാൻ മതത്തെ മുതലെടുക്കുകയും അതൊരു കച്ചവടമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്നു കരുതുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വിഭജനവും സംഘർഷണവും സൃഷ്ടിക്കുന്നു മതം ആഴത്തിലുള്ള വ്യക്തിപരമായ വിശ്വാസമാണ് അതിനെ പൊളിറ്റിക്കൽ ഗെയ്മുമായി ദുരുപയോഗം ചെയ്യുന്നത് അതിന്റെ നിഷ്കളങ്കതയെ നശിപ്പിക്കുന്നു മതത്തിന്റെ മൗലിക മത മായ പ്രാചീന മൂല്യങ്ങൾക്ക് ആളുകളുടെ മതപരമായ അനുഭവങ്ങൾക്ക് ഇതു വലിയ ദോഷം ചെയ്യും മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റിനിർത്തണമെന്ന് ആണ് എന്റെ അഭിപ്രായം